നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് തൊഴിലില്ല എന്ന് പറയുന്നത് തൊഴിൽ അതുകൊണ്ടാണ് അവര് തൊഴിൽ അന്വേഷിച്ച് അന്യ സംസ്ഥാനങ്ങളിലും അന്യ രാജ്യങ്ങളിലും പോകുന്നത് ഇവിടെ പ്രൈവറ്റായിട്ടുള്ള തുറമുഖം വിഴിഞ്ഞം പോലെയുള്ള തുറമുഖങ്ങൾ വരെയും അതേപോലത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ വന്നാൽ നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ ജോലികൾ കിട്ടുകയും തൊഴിൽ സാധ്യതകൾ കൂടുകയും നമുക്ക് തന്നെ ഇവിടെ നമ്മുടെ കുട്ടികളെ നിലനിർത്തി പോരാനും അവർക്ക് ജോലി ലഭിക്കാനും സാധ്യത കൂടുതലാണ് എന്തെല്ലാം തൊഴിലവസരങ്ങളുണ്ട് ഇവിടത്തെ ഏത് ജോലിയും ചെയ്യാൻ നമ്മുടെ യുവാക്കളും തയ്യാറാവണം സർക്കാരും അതിന് അനുസരിച്ചുള്ള സൗകര്യങ്ങൾ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കണം എന്നാ മാത്രമേ കുട്ടികൾക്ക് തൊഴിലില്ലായിമ നമുക്ക് പരിഹരിക്കാൻ പറ്റുകയുള്ളൂ തൊഴിൽ മേഖലകൾ സർക്കാർ കണ്ടെത്തി അതിനെ വിപുലീകരിച്ച് വേണ്ട നടപടികൾ സ്വീകരിച്ച് കുട്ടികളെ ഇവിടെത്തന്നെ നിർത്തി ഉദ്യോഗം തൊഴിലുകൾ കണ്ടെത്തി അവരുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ട ചുമതല സർക്കാരിനും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതനുസരിച്ച് എല്ലാവരും മുന്നോട്ട് പോകണം കുട്ടികളും നല്ലോണം പണിയെടുക്കണം ഏത് പണിയും ചെയ്യാൻ തയ്യാറാവണം പിന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളും പ്രൈവറ്റ് മേഖലയും കൂടുതൽ ഉണ്ടാവുകയാണെങ്കിൽ പല പല കമ്പനികൾ വിദേശത്തിൽ നിന്ന് ഇങ്ങോട്ട് വരികയും അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ച് അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ തൊഴിൽ അവസരങ്ങളുണ്ടാവും കുട്ടികൾ ഇവിടെത്തന്നെ നിൽക്കും അന്യരാജ്യങ്ങളിലേക്ക് പോകില്ല അവരുടേതായ അവസരങ്ങൾ അവർക്കും ലഭിക്കും ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്